സ്ത്രീകൾ നൃത്തം പഠിക്കുന്നത് പോലെ തന്നെ ഏറ്റവും നല്ലതാണ് പുരുഷന്മാർ നൃത്തം അഭ്യസിക്കുന്നത് ഒരുപാട് പുരുഷന്മാർ ഇപ്പോൾ ഈ കാലഘട്ടത്തിൽ കുട്ടികളും പുരുഷന്മാരും ഒക്കെ നൃത്തം അഭ്യസിക്കുന്നുണ്ട് അത് നല്ല ഒരു കാര്യമായിട്ട് തന്നെയാണ് എനിക്ക് തോന്നുന്നത് നമ്മളുടെ ഫിലിം സ്റ്റാർ വിനീത് ഉൾപ്പെടെയുള്ളവർ നൃത്തം അഭ്യസിക്കുന്നുണ്ട് അത് നല്ല ഒരു കാര്യമാണ് സ്ത്രീകളുടെ നൃത്തത്തെപ്പോലെ ഭംഗിയാണ് പുരുഷന്മാർ നൃത്തകല പഠിക്കുന്നതും നൃത്തം അഭ്യസിക്കുന്നതും ഒക്കെ കാണാൻ അത് നല്ല ഒരു കാര്യമാണ് അപ്പം എൻ്റെ അഭിപ്രായത്തിൽ പുരുക്ഷ സ്ത്രീകളോടൊപ്പം തന്നെ പുരുക്ഷന്മാരും നൃത്തം അഭ്യസിക്കുക എന്നുള്ളത് നല്ല ഒരു കാര്യം തന്നെയാണ്